ഞങ്ങളുടെ പ്രദേശത്ത് ഹോം സ്റ്റേ കൊടുക്കുന്ന വീടുകളെ പറ്റി അറിയില്ല പക്ഷേ താമസിക്കുവാൻ ആവശ്യമായ ഹോട്ടലുകളൊക്കെ ധാരാളമുള്ള സ്ഥലമാണ് ഞങ്ങളുടെ ഏരിയ പ്രത്യേകിച്ചും തെന്മല സൈഡിൽ ഒക്കെ ആണെങ്കിൽ റെസ്റ്റർ റിസോർട്ടുകളെല്ലാം ഉണ്ട് അവിടെ വരുന്ന വിനോദസഞ്ചാര സഞ്ചാരികൾക്ക് ആവശ്യത്തിന് താമസിക്കാനുള്ള സൗകര്യവും അവിടെയുണ്ട് പിന്നെ പുനലൂരേക്ക് വരുവാണെങ്കിൽ പുനലൂര് തൂക്കുപാലമൊക്കെ ഫേമസ് ആണ് അവിടെ പുനലൂരൊക്കെ സന്ദർശിക്കുന്നതിന് വേണ്ടി അവിടെ ധാരാളം ഹോട്ടലുകളുണ്ട് അവിടെ വേണമെങ്കിൽ താമസിക്കാം സൗജന്യമായിട്ടുള്ള താമസ സൗകര്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ള സ്ഥലം സാമ താമസിക്കാവുന്ന ഹോട്ടലുകളൊക്കെ ധാരാളം ഉണ്ട് ഉണ്ട് അവിടെ താമസിക്കുന്നതാണ് ഏറ്റവും ഭംഗി പിന്നെ കൊല്ലത്തേക്ക് കൊല്ലം ബീച്ചുകൾ കൊല്ലം ഞങ്ങൾ ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റ് ഡിസ്ട്രി കൊല്ലം ഡിസ്ട്രിക്റ്റ് ആണ് അവിടെ ധാരാളം ഹോട്ടലുകൾ ഒക്കെയുണ്ട് കൊല്ലം ബീച്ച് ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് അവിടെ വരുന്നവർക്ക് താമസിക്കാൻ വേണ്ടിയുള്ള ഹോട്ടൽ സൗകര്യം ധാരാളം ഉണ്ട് കൊല്ലത്ത് ധാരാളം ടൂറിസ്റ്റുകളൊക്കെ പോകുന്ന ഏരിയ ആണ് വിദേശികളും ധാരാളം വരുന്നുണ്ട് അവിടെ എല്ലാ എല്ലാവിധ സേവനങ്ങളും ഉണ്ട് ഫോർ സ്റ്റാർ ഹോട്ടൽ ഉണ്ട് ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഉണ്ട് എങ്ങനെ വേണമെങ്കിലും അവിടെ താമസിക്കാം അത് നമ്മുടെ പോക്കറ്റിൽ പൈസ അനുസരിച്ച് അവിടെ താമസിക്കാം അതിനൊന്നും ഒരു കുഴപ്പവും ഇല്ലാത്ത സ്ഥലങ്ങളാണ് അവിടെ എങ്ങനെ വേണമെങ്കിലും താമസിക്കുവേം ചെയ്യാം അതിനെ പറ്റി കൂടുതൽ ഒന്നും അറിയില്ല ഇത്രയും അറിയാം ഓക്കെ